ഇന്നത്തെക്കാലത്ത് യുവജനങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് വാട്സ്ആപ്പ് പോലെയുള്ള മാധ്യമങ്ങൾ ടെലിഗ്രാം പോലെയുള്ള മാധ്യമങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ ഉപോഗിക്കുന്നത് ഇതൊക്കെയാണ് ഇതിൻ്റെ സ്മാർട്ട് ഫോണുകളിൽ ഒത്തിരി ഗുണങ്ങളും അതുപോലെ തന്നെ ഒത്തിരി ദോഷങ്ങളുമുണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കുവേണ്ടി സ്മാർട്ട് ഫോൺ ജസ്റ്റ് ഒന്ന് എടുത്താൽ മതി എന്തെങ്കിലും ഒരു വാക്കുകളുടെ അർഥം അറിയില്ലെങ്കിൽ എതെങ്കിലും ഒരു പുതിയൊരു അറിവ് കിട്ടുകയാണെങ്കിൽ ഉടനെ തന്നെ അതിനെക്കുറിച്ച് കാര്യമായ ഒരു ഗവേഷണം നടത്താൻ അല്ലെങ്കിൽ നമുക്ക് താൽക്കാലികമായി അറിയാനുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് നമ്മുടെ സ്മാർട്ട് ഫോണിലൂടെ ലഭ്യമാണ് ആവശ്യമായുള്ള നെറ്റ്വർക്ക് കണക്ഷൻസ് ഇപ്പം എല്ലായിടത്തും ലഭ്യമാകുന്ന ഈ ഒരവസ്ഥയിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മുടെ വിരൽത്തുമ്പിൽ ലഭിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ വിദ്യാഭ്യാസ രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ അറിവിൻ്റെ മേഖലയിൽ നമുക്ക് ഒരുപാട് വളരാൻ വേണ്ടിയുള്ള ഒരു സഹായിക്കുന്നുണ്ട് സ്മാർട്ട് ഫോൺ അതുപോലെതന്നെ നമുക്ക് ഇപ്പോഴത്തെ നമ്മുടെ ഒരു പ്രതിസന്ധി എന്നു പറയുന്നത് ഇപ്പോഴത്തെ കുട്ടികൾക്കും അതുപോലെ തന്നെ മധ്യവയസ്ക്കർക്കും വയസ്സായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഈ ഇൻഫർമേഷൻ ഓവർലോഡഡാണ് ഒരിക്കലും ആവശ്യമായിട്ടുള്ള അറിവുകളോ അല്ലെങ്കിൽ ആശയങ്ങളോ അല്ല ഇപ്പോൾ നമുക്ക് കൈമാറിപ്പോയ്ക്കൊണ്ടിരിക്കുന്നത് ആവശ്യത്തിന് അധികം ആശയങ്ങളുടെ ഒരു ആശയ കടൽ തന്നെ നമ്മുടെ ഇൻ്റർനെറ്റ് ലോകത്തിലുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം അറിവുകൾ നമുക്ക് ഒത്തിരി ഉപകാരപ്രദമായിട്ട് ഉള്ളതുണ്ടെങ്കിൽ കൂടിയും കൂടുതലും ഉപകാര പ്രദമല്ലാത്തതാണ് അതുപോലെ തന്നെ വ്യക്തിപരമായിട്ടുള്ള നമ്മുടെ ജീവിതത്തെ പ്രദർശിപ്പിക്കാൻ ഒത്തിരി നമ്മുടെ നവമാധ്യമങ്ങൾ നമ്മളെ സഹായിക്കുന്നത് പക്ഷേ അത്തരത്തിൽ നമ്മുടെ സ്വകാര്യ ജീവിതത്തെപ്പോലും വ്യക്തിപരം ഈ ഒരു ഒരു ആഗോള തരത്തിലുള്ള ഒരു ഒരു പ്ലാറ്റ്ഫോമിലേക്ക് അല്ലെങ്കിൽ ഒരു വേദിയിലേക്ക് നമ്മൾ അവതരിപ്പിക്കുമ്പോൾ അവരുടെ നഷ്ടപ്പെടുന്ന ഒരു സ്വകാര്യതയും നമുക്ക് പിടിച്ച് കിട്ട് തിരിച്ചു കിട്ടില്ലല്ലോ നമുക്കുപോലും അറിയില്ലാത്ത നമുക്ക് പോലും എത്തപ്പെടെണ്ടാത്ത സ്ഥലങ്ങളിലും നമ്മൾ എത്തിപ്പെടുന്നു എന്നുള്ളത് ഇതിൻ്റെ ഒരു നല്ല വശത്തേക്കാൾ കൂടുതലും ദോഷകരമായ ഒരു വശമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വ്യക്തിപരമായി നമ്മൾ നമ്മുടെ വ്യക്തിപരമായ മറ്റുള്ളവരുമായി നമ്മൾ കാണിക്കുന്ന വ്യക്തിപരമായ സമയങ്ങൾ ഇപ്പം പുറംലോകവും കാണിക്കാൻ വേണ്ടി കാണിക്കുന്ന ഒട്ടനവധി ദമ്പതികളും അതുപോലെതന്നെ സൗഹൃദങ്ങളും ഇപ്പോൾ കാണാൻ സാധിക്കുന്നതാണ് എല്ലാം ഓർമ്മകളുടെ ഒരു വലുപ്പത്തിലാണ് ഇതൊക്കെ സൃഷ്ടിക്കപ്പെടുന്നത് എങ്കിൽക്കൂടിയും ഓർമ്മകളെക്കാളും ഇതൊക്കെ ഭാവിയിലെ ഒരു മുറിവുകളായി മാറാനുള്ളൊരു സാധ്യതയുണ്ട് കാരണം ആരും ഒന്നും എല്ലാം അപ്രതീക്ഷിതമായി സംഭവിക്കുന്നതാണല്ലോ അതുകൊണ്ടു തന്നെയും മൊബൈൽ ഫോണിൻ്റെ ഉപയോഗമെന്നു പറയുന്നത് നമുക്ക് എത്രത്തോളം ആവശ്യത്തിന് ഉപയോഗിക്കാമോ അത്യാവശ്യത്തിന് ഉപയോഗിക്കാമോ അതാണ് ഏറ്റവും നല്ലത് അനാവശ്യമായി ഉപയോഗിക്കുന്നതാണ് നമുക്കെപ്പോഴും ദുർ ഇതിൻ്റെ ഒരു ദോഷമായിട്ട് പറയാൻ സാധിക്കുക നമ്മുടെ സ്നേഹബന്ധങ്ങളും പ്രണയ ബന്ധങ്ങളും പോലെയുള്ള കാര്യങ്ങൾ അതുപോലെതന്നെ ജീവിതത്തിൻ്റെ സങ്കടകരമായ അവസ്ഥയിൽ നമ്മൾ കേൾക്കുന്ന പാട്ടുകളെപ്പോഴും സങ്കടകരമായ ഒരു ഇതായിരിക്കും നമുക്ക് ആത്മഹത്യ ചെയ്യാൻ പേടിയാണെങ്കിൽ ആന്മഹത്യ ചെയ്യാൻ വേണ്ട മോട്ടിവേഷൻ അതിനു വേണ്ടിയുള്ള ജീവിക്കാനുള്ള പ്രേരണകളെ കാളും ജീവിതം അവസാനിപ്പിക്കുവാനുള്ള പ്രേരണകൾ പലപ്പോഴും നമുക്ക് പല പല മാധ്യമങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നുണ്ട് അതിൽ നിന്ന് അതുപോലെതന്നെ അല്ലെങ്കിൽ കള്ള് കഞ്ചാവ് പോലെയുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗം നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ ബാധിക്കുന്നത് നമ്മുടെ വിശ്വൽ മീഡിയയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിപ്പോകാറുണ്ട് സിനിമകളിലും പരസ്യങ്ങളിലും മറ്റു വെബ് സീരീസുകളിലും സീനുകളിലും ഒക്കെ കള്ളുകുടിച്ച് അർമ്മാദിക്കുന്ന ചെറുപ്പക്കാരെ കാണുമ്പോൾ കുരുന്നു മനസ്സുകളിലേക്ക് വളർന്നു വരുന്ന ഒരു ചിന്ത എന്നുപറയുന്നത് വലുതാകുമ്പോൾ നമ്മൾ അങ്ങനെ ആകണമെന്നുള്ളതാണ് ആകരുത് എന്നു താഴെ ചെറുതായി എഴുതിക്കാണിക്കുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നില്ല അത്തരത്തിൽ ശ്രദ്ധയിൽപ്പെടേണ്ട ആവിശ്യം ഇല്ലല്ലോ കാരണം അവർ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് എന്തു പ്രശ്നം പറ്റാനാണെങ്കിൽ ചിന്തിക്കുന്ന ഒരു മാധ്യമമാണ് അല്ലെങ്കിൽ ഒരു തലമുറയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാഴ്ച്ചകൾ തന്നെ നമ്മുടെ ലോകത്തുനിന്ന് ഇല്ലാതാക്കണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ ഈ തലമുറയോടുകൂടി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിന്നു പോകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്